കോഴിയെ വളർത്തുന്നെന്ന് പറഞ്ഞാല് നാടൻ കോഴിയുണ്ടായിരുന്നു ബോയ്ലർ കോഴിയുണ്ടായിരുന്നു പിന്നെ കാടക്കോഴി കരിങ്കോഴി ഇവ ഇതിനെ വളർത്തും വളർത്തിയിട്ട് കരിങ്കോഴിയെ ഈ പിന്നെ അസുഖക്കാർക്ക് വളരെ വലിവൊക്കെ ഉള്ളവർക്ക് നല്ലതാണെന്ന് പറയുന്നതുകൊണ്ട് അവർ അവര് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു നാടൻ കോഴിയെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് അതായത് മുട്ടയ്ക്ക് ഗുണമുണ്ട് ബോയ്ലർ കോഴിയെന്നു പറഞ്ഞാല് കൂടുതലും ഇറച്ചിക്കാണ് നമ്മളുപയോഗിക്കുന്നത് അതിൻ്റെ മുട്ടയ്ക്കു വലിയ ഡിമാൻറ്റില്ല അതുകാരണം നാടൻ കോഴിയെ വളർത്തി പരിപാലിച്ച് മുട്ട വിതരണം ചെയ്യുന്നു പിന്നെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള മുട്ടയെല്ലാം നമ്മളെടുക്കുന്നു കാടക്കോഴീന്ന് പറഞ്ഞാല് കാടക്കോഴിയെ കൂടിനകത്ത് തന്നെയിട്ടാണ് വളർത്തിയത് വളർത്തിയത് കാരണം എന്നാല് അത് പത്തെണ്ണം ഉണ്ടേലും പത്തും മുട്ടയിടും പിന്നെ മുട്ട രണ്ട് രൂപാ വിലയ്ക്കു കടകളിലും വീടുകളിലും കൊടുക്കുമായിരുന്നു അതിൻ്റെ മുട്ടയും പിന്നെ ഇറച്ചിയെല്ലാം നമുക്ക് വീട്ടാവശ്യത്തിനുപയോഗിക്കാമായിരുന്നു ഇതിൻ്റെ മുട്ടയിടല് കഴിയുമ്പോള് നമ്മള് പിന്നെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കായിട്ട് പിന്നെ ഇത് ഭക്ഷണത്തിനായിട്ട് എടുക്കുന്നുണ്ട് ബോയ്ലർ കോഴിയെന്നു പറഞ്ഞാല് അതിൻ്റെ ഇറച്ചി പിന്നെ നമ്മളിപ്പോള് പിന്നെ ദശയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ബോയ്ലർ കോഴിക്ക് നാടൻ കോഴിയുടെയത്രയും ഗുണമില്ല നാടൻ കോഴിക്ക് ഇച്ചിര ഇറച്ചി കുറവാണേലും അപ്പടി അല്ല എന്നു പറഞ്ഞാലും പിന്നെ ഇത് നാടൻ കോഴി തന്നെയാണ് ഗുണം പിന്നെ പൂവൻ കോഴി പൂവൻ കോഴി എന്ന നല്ല ഇനം മുഴുത്ത കോ കോഴികളും തൂക്കമൊക്കെ ഉള്ളതാണെങ്കില് നമുക്ക് മാർക്കെറ്റില് നല്ല വിലയൊക്ക കിട്ടും അങ്ങനെയും പിന്നെ ബിസിനെസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാത്തിനും ഒരേ തീറ്റയാണു കൊടുക്കുന്നത് കാടയ്ക്ക് പിന്നെ കാട തീറ്റേന്ന് പറയുന്നത് ഉണ്ടല്ലോ അത് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ അതുങ്ങളെ പരിപാലിക്കുന്ന ഇതുപോലെ തന്നെ നമ്മള് എന്നാ വെള്ളം വെള്ളം മെയിന് അതായത് പിന്നെ തുളസിയിലയും പനിക്കൂർക്ക ഇലയും ഇതും മഞ്ഞളും കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ചാറിച്ച് അതുങ്ങള്ക്ക് കുടിക്കാൻ കൊടുക്കും ഒരു നേരമേ കാട പക്ഷികൾക്ക് ആഹാരം കൊടുക്കത്തുള്ളു നാടൻ കോഴിയെന്നു പറഞ്ഞാല് രണ്ട് നേരം കൊടുക്കും പിന്നെ ഇടയ്ക്കു വരുന്ന ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നത് പൂവൻ കോഴിയെ നമ്മള് എന്നാ ഒരുവിധം വലുതായി കഴിയുമ്പോള് വേറെ കൂട്ടിനകത്താക്കിയിട്ട് നമ്മളതിന് വേറെ സംരക്ഷണം കൊടുക്കും അതിനെല്ലാം ഇതുപോലെ ഗോതമ്പു പുഴുങ്ങിയത് പിന്നെ പുഷ്ടി പുഷ്ടി വാങ്ങിച്ചത് കുഴച്ച് അതുങ്ങള്ക്ക് ആവശ്യത്തിന് കൊടുക്കും അപ്പോഴത് ആരോഗ്യംവയ്ക്കും അതായത് നല്ല ദശ വച്ച് കോഴിയെ നമ്മള് വില്ക്കുമ്പോള് മൂന്നും നാലും കിലോയൊക്കെ ചിലപ്പോള് നല്ല നാടൻ കോഴിയാകട്ടെ കിട്ടും നമുക്കത് വില്ക്കാനൊക്കെ സാധിക്കും അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങള് പിന്നെ ബോയ്ലർ കോഴിയെന്നു പറഞ്ഞാലതിനെ നമ്മള് അതിൻറ്റേന്തായ സംരക്ഷണങ്ങളൊക്കെ ഒത്തിരി കൊടുക്കണം പിന്നെ ചൂട്

വളർത്താനായിട്ട് നല്ലത് നാടൻ കോഴി തന്നെയാണ് ആഹാരം കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ മുട്ട ലഭിക്കും അത് മുട്ട മെതീടീല് കഴിയുമ്പോള് നമുക്ക് എത്ര വേണേലും പിന്നെ ഭക്ഷണത്തിനായിട്ട് വില്ക്കാൻ സാധിക്കും നല്ല ഡിമാൻറ്റുള്ളതാണ് നാടൻ കോഴി കടകളിലെടുക്കും അല്ലെങ്കില് വീടുകളില് വന്നാൾക്കാര് വന്ന് വാങ്ങിച്ചുകൊണ്ടുപോകും അങ്ങനെയൊക്കെ ചെയ്യുന്നു